നീന്തൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി ആദ്യമായിട്ട് മാനസികമായിട്ട് ഒരല്പം ധൈര്യം സംഭരിക്കേണ്ടതാണ് നീന്തൽ പഠിക്കാൻ ഒന്നുങ്കിൽ നിങ്ങള് സ്വിമ്മിംഗ് ഡ്രസ്സുകളോ അതല്ല എങ്കിൽ ഒരു വലിയ ട്യൂബ് എയറ് നിറച്ച് അതോ അതും അല്ല എങ്കിൽ മുതിർന്ന നീന്തൽ അറിയാവുന്ന ഏതെങ്കിലും വ്യക്തികളുടെ കൈത്തണ്ടയിൽ കിടന്നു കൊണ്ടോ അതുമല്ലെങ്കിൽ നീന്തി പഠിക്കാൻ സൗകര്യമുള്ള അധികം കുണ്ടില്ലാത്ത അല്ലെങ്കിൽ അധികം വെള്ളമില്ലാത്ത സ്ഥല ചെറിയ ചെറിയ തോട് തോടുകളിലോ ആണ് നീന്തിപ്പഠിക്കേണ്ടത് നിലയില്ല വെള്ളത്തില് നീന്തിപ്പഠിക്കാൻ ഇറങ്ങരുത് നീന്തൽ പഠിക്കാൻ തൊടങ്ങുന്ന അവസരങ്ങളിൽ പഠിച്ച് അഭ്യാസമുള്ള ഏതെങ്കിലും വ്യക്തികളെ ഒക്കെ നിങ്ങളുടെ അഭ്യാസ സമയത്ത് ഈ കൊളത്തിനോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പുറത്തോ ഉണ്ടാവും എന്ന് നിങ്ങൾക്കുറപ്പ് വരുത്തണം അതിനുശേഷം നല്ല ധൈര്യത്തോടുകൂടി തന്നെ നിങ്ങള് നീന്തൽ പഠിക്കാൻ ശ്രമിക്കണം നീന്തൽ ഡ്രസ്സൊക്കെയാണ് ധരിച്ചിട്ടാണ് എങ്കിൽ പിന്നെ അത്ര പ്രശ്നമില്ല അതല്ല നീന്തലിൻ്റെ പ്രത്യേക സ്വിമ്മിംഗ് ഡ്രസ്സുകളൊന്നും ധരിക്കാതെയാണ് തനി നാടൻ ശൈലിയിലാണ് പഠിക്കുന്നതെങ്കില് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് തുടങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്